എൻ്റെ വീടിന് അടുത്ത് നല്ല ഒരു കൂടുതൽ ഗവൺമെൻ്റ് ഹൈ സ്കൂൾ ഉണ്ട് അവിടത്തെ നല്ല നല്ല ഒരു സ്കൂളാണ് അതായത് പഴയകാല ഓർമ്മകൾ സമ്മാനിക്കുന്ന ഒരു സ്കൂളാണ് എൻ്റെ സ്കൂള് അതുപോലെ തന്നെ ധാരാളം വൃക്ഷത്തൈകളും നല്ല കുട്ടികളും അത്യാവശ്യം നല്ല അദ്ധ്യാപകരും ഉള്ളൊരു സ്കൂളാണ് അതുപോലെ തന്നെ നല്ല നാട്ടുകാർക്ക് ആയാലും എല്ലാവർക്കും നല്ല ഒരു പ്രശസ്തമായ ഞങ്ങളുടെ നാട്ടിലെ അതായത് എൻ്റെ ഞങ്ങളുടെ അടുത്തുള്ള വശത്തെ ഏറ്റവും നല്ല ഒരു സ്കൂളാണ് ഞാൻ പഠിച്ച കൂടൽ ഗവൺമെൻ്റ് സ്കൂൾ അവിടുത്തെ അവിടുത്തെ അധ്യാപകരും വിദ്യാർത്ഥികളും എല്ലാം തന്നെ നല്ല കുട്ടികളാണ് നല്ല ഉന്നത വിജയശതമാനം ഉള്ള സ്കൂളും ആണ് ഞങ്ങളുടെ ജില്ലയിലെ ഏറ്റവും വിജയ ശതമാനമുള്ള സ്കൂളാണ് എൻ്റെ കൂടൽ ഗവൺമെൻ്റ് സ്കൂള് അതുപോലെ തന്നെ നഗരങ്ങൾ എൻ്റെ സ്കൂളെന്ന് പറഞ്ഞാൽ ഗ്രാമത്തിലാണ് ഗ്രാമത്തിൽ അതായത് ഒരു വയൽ അതായത് നല്ല ഒരു വയലിൻ്റെ സൈഡിൽ കൂടെ കണ്ടത്തിൽ കൂടെ രാവിലെ ഞാനും എൻ്റെ കൂട്ടുകാരും കൂടെ ഓടിപ്പോവും പത്ത് മണിക്ക് ക്ലാസ്സിൽ കയറാൻ അതായത് ഒരു ഗ്രാമീണ സ്കൂളാണ് എൻ്റേത് അതുപോലെ ഗ്രാമമാണ് എൻ്റെ നാട് അതുപോലെ സിറ്റി ലൈഫ് നഗരങ്ങളിലെ പോലെ തിക്കും തിരക്കും അതുപോലെ അത് അത്രയ്ക്ക് ശബ്ദ മലിനീകരണമുള്ളിടത്ത് പഠിക്കുന്നത് എങ്ങനെയാണ് ഇപ്പോഴത്തെ കുട്ടികൾ ഈ ശബ്ദത്തിൻ്റെ കൂടെ ടീച്ചർമാർ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ പഠിക്കാൻ പറ്റില്ല